ഹലോ ആ പറഞ്ഞോ നിങ്ങൾക്ക് എവിടെയാണ് ഓട്ടം പോണമെന്ന് പറഞ്ഞത്

ആ മണ്ണാറശാല അമ്പലത്തിലേക്ക് അവിടെ നിന്ന് പോകാമല്ലോ ഓട്ടോയിലല്ലേ നിങ്ങൾ പോകാനുദ്ദേശിക്കുന്നത് ബസ്സ് ചാർജിനെപ്പറ്റി ആലോചിക്കേണ്ടതില്ലല്ലോ ഓട്ടോയ്ക്കാണെങ്കിൽ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയോളം ആവും ആ ബില്ലും റേറ്റൊന്നുമില്ല കാരണം ഇത് ന്യായമായ റേറ്റിലോടുന്ന ഒരാളാണ് എനിക്ക് പിന്നെ ഈ നമ്മുടെ മണ്ണാറശ്ശാല എന്നു പറയുന്നത് വേറെ ഡിസ്ട്രിക്ടായതുകൊണ്ട് എനിക്ക് ആ ഇപ്പോൾ അതിന് വേറൊരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും അപ്പം തൊട്ട് വടക്കോട്ട് വരണം എന്തെ

രണ്ടായിരത്തി നാന്നൂറ് ഇതിപ്പോൾ ഇതിൽ ബാർഗെയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല ഞാൻ പെട്രോൾ ചാർജിൻ്റെ കാര്യം മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ പിന്നെ എൻ്റെ എൻ്റെ കാശും രണ്ടായിരത്തി ഇരുന്നൂറു രൂപ ന്യായമായിട്ടുള്ളൊരു റേറ്റേ ഉള്ളു ഞാൻ ഇല്ലി ഇല്ല ഇത് ന്യായമായ ആ അന്യായമായ ചാർജ് മേടിക്കുന്ന ഒരാളല്ല ഞാനൊരു സത്യ ക്രിസ്ത്യാനിയാണ് കൂടുതൽ കാശ് മേടിക്കുന്നതിനോട് എനിക്ക് താൽപ്പര്യം ഇല്ല കാരണം പിള്ളേരൊക്കെയുള്ളതാണ് അവർക്ക് ചൊറി വരാതെ ഇരിക്കണമല്ലോ

ആ നിങ്ങൾ ടാക്സിയ്ക്കൊക്കെ പോയാൽ കാശവരെത്ര എടുക്കുമെന്നറിയുമോ ഇതിൻ്റെ ഡബിളാകും ടാക്സിയ്ക്ക് പോയാൽ ഇതിപ്പോൾ ഓട്ടോയിൽ ചെന്നെങ്കിൽ രണ്ട് പേരല്ലേ ഉള്ളൂ വളരെ സെയ്ഫായിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവിട്ടേക്കാം ഞാൻ ഈ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയെ ചോദിച്ചുള്ളു ചേട്ടന് ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കാരണം ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഓട്ടമെല്ലാം ഉണ്ട് നമ്മൾ ആ തിരുവല്ലയിൽ ചെന്നേച്ചതൊക്കെ എനിക്കറിയാം റൂട്ടൊക്കെ ഞാൻ പറഞ്ഞ് റൂട്ടൊക്കെ നിങ്ങളൊന്നും ആലോചിക്കണ്ട കാര്യമില്ല അതൊക്കെ കറക്റ്റായിട്ട് ഞാനവിടെ സെയ്ഫായിട്ടെത്തിച്ചുകൊളളാം നിങ്ങൾ ആ വണ്ടി കയറി ഇരുന്നാൽ നിങ്ങൾ ആ വണ്ടി കയറി ഇരുന്നാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളെല്ലാം നല്ല ഒന്നാന്തരം വണ്ടിയാണ് പുതിയ വണ്ടിയാണ് നല്ല വഴിയെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം വഴി കൊണ്ടു പൊയ്ക്കോളാം ഞാൻ അതിന് എനിക്ക് പന്ത്രണ്ട് കിലോമീറ്റർ എക്സ്ട്രാ ആയാലും തരക്കേടില്ല ഞാൻ നല്ല വഴിയേ കൊണ്ടു പൊയ്ക്കോളാം നിങ്ങളെ കുഴിയിൽ ചാടിക്കണമെന്ന് അത്യാവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചാടിക്കാം പക്ഷെ ഞാനാരേയും അങ്ങനെ കുഴിയിൽ ചാടിക്കുന്ന ആളല്ല ആ അപ്പോൾ ആ ഓക്കെ ഓക്കെ